ഹലോ ഹലോ എന്താണ് ഡോക്ടറാണ്

ആ ആ ആ രോമം കൊഴിഞ്ഞ് മേലൊക്കെ ചുവന്നിട്ടുണ്ടോ ചുവന്നിട്ടാണോ ഉള്ളത് മേലൊക്കെ പട്ടീന്റെ മേലൊക്കെ ചുവന്നിട്ടുണ്ടോ രോമം ചുവന്നിട്ടുണ്ടോ ആ ആ ആ എന്നാൽ പിന്നെ അതിനെ നാളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി പട്ടീനെ ആ ആ രാവിലെ വിളിച്ച് നോക്കുക വിളിച്ച് നോക്കിയിട്ട് വരിക ബുക്ക് ചെയ്യണേ ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ

എന് എന്താ ചെയ്യേണ്ടത് കുളിപ്പിക്കുകയൊക്കെ വേണോ അല്ല അവിടെ ഞങ്ങൾ കുളിപ്പിക്കണോ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ കുളിപ്പിക്കണോ എന്ന് അവിടെ കുളിപ്പിക്കേണ്ട എല്ലാ ഇതും സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് ആ കുളിപ്പിച്ചിട്ട് ആ പൈസ ആകും കേട്ടോ പത്ത് കുളിപ്പിക്കുക നഖം വെട്ടി കളയുക എല്ലാം ചെയ്താൽ പിന്നെ മരുന്നിനും എല്ലാത്തിനും എല്ലാത്തിനും കൂടി ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറു രൂപ കൊണ്ടുവന്നാൽ ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ പൈസ ആകും ആ അപ്പം നാളെ വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ട് വേണം വരണമെങ്കിൽ പട്ടിക്ക് എത്ര വയസ്സ് ഉണ്ടാകും ഒരു വയസ്സാണോ ആ ചെറിയ കുട്ടി ആണല്ലൊ അല്ലേ ആണാണോ പെണ്ണാണോ പെണ്ണാണ് ഉം

എന്നാൽ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം വന്നാൽ മതി ബുക്ക് ചെയ്തിട്ട് വേണം വരണമെങ്കിൽ എന്നാൽ ശരി ശരി ശരി